അഞ്ച് എട്ട് രണ്ടായിരത്തി രണ്ട് പത്ത് മൂന്ന് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തെട്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഇരുപത് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്